ഞങ്ങളുടെ ഗ്രാമത്തിൽ നേരത്തെ ഈ ഭജന ട്രൂപ്പുണ്ടായിരുന്നു അവർ ഈ ഓരോ വീടുകളിൽ ഒത്തു കൂടി ഉടുക്ക് വിൽപ്പാട്ട് ഇതൊക്കെ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് ഇന്ന് ഇപ്പം പുതിയ പുതിയ സംഗതി വന്ന് ഉടുക്കിനൊന്നും വലിയ മജോറിറ്റി ഇല്ലാതെ യാക്കി കൂടുതലായിട്ടും ഹൈന്ദവ വീടുകളിൽ ഈ ശബരിമലയ്ക്ക് പോകുമ്പം ഭജനക്ക് വേണ്ടിയിട്ടാണ് പങ്കെടുത്തു കൊണ്ടിരുന്നത് അന്ന് ആറ് ഏഴ് പേര് പോയി ഇരുന്ന് പാടി ഉടുക്കടിക്കും വിൽപ്പാട്ടാണെങ്കിൽ രണ്ട് പേര് പാടി കൊടുക്കും മറ്റവർ വില്ലടിക്കും അങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ഇപ്പം അതിൻ്റെ എല്ലാം കാലം പോയി ഇവിടെ ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടികളൊന്നുമില്ല